തീർച്ചയായും രാസപദാർത്ഥമുള്ള കീടനാശിനികളുടെ ഉപയോഗം നമ്മുടെ മണ്ണിനെ നല്ല രീതിയിൽ നശിപ്പിക്കുന്നുണ്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള കീടനാശിനികളാണ് നാം ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് ആ ചെടിയിലെ കീടങ്ങളെ നശിപ്പിക്കുന്നതിനോടൊപ്പം അതിലുള്ള രാസപദാർത്ഥങ്ങൾ നമ്മുടെ മണ്ണിൽ കലരുകയും മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ചില കിടനാശിനികൾ ഉപയോഗിച്ചുകഴിഞ്ഞാൽ തുടര്ന്നുള്ള വർഷങ്ങളിൽ ആ കൃഷിസ്ഥലത്ത് നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് പോലും ലഭിക്കാത്ത അത്രയും മണ്ണിൻ്റെ ഘടന മാറുന്നുണ്ട് പണ്ടുള്ള ആളുകൾ കൂടുതൽ ജൈവ കീടനാശിനികളായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് അതിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട് കാലത്തിനനുസരിച്ച് കീടങ്ങൾക്കും ജൈവ കീടനാശിനികളെ എതിർത്ത് നിൽക്കാനുള്ള കഴിവ് കൂടിവരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ ജൈവ കീടനാശിനികളിൽ നിന്ന് രാസ കീടനാശിനികളിലേക്ക് മാറ്റം വരുത്തി പക്ഷെ മണ്ണിൻ്റെ ഘടനയെ അതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകാനും അതുപോലെ മണ്ണിൻ്റെ ഗുണമേന്മയെ വർദ്ധിപ്പിക്കാനും എന്തുകൊണ്ടും ജൈവ കീടനാശിനികൾ തന്നെയാണ് നല്ലത് വേപ്പെണ്ണ എമൽഷൻ സോപ്പ് വെള്ളം ബാർ സോപ്പ് കലക്കിയ വെള്ളം അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനും വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് മറ്റു മാർഗ്ഗങ്ങളുമുണ്ട് അവയെ ആകർഷിച്ചുകൊണ്ടുള്ള കെണികളും മനുഷ്യൻ തന്നെ കീടങ്ങളെ നശിപ്പിക്കുന്ന യാന്ത്രികമായിട്ടുള്ള കീടനിയന്ത്രണ മാർഗ്ഗങ്ങളും നമുക്ക് അവലംബിക്കാവുന്നതാണ് അത്തരത്തിലുള്ള മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാനും തുടർന്നുള്ള കാലങ്ങളിൽ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നല്ല ഭൂമി ദാനം ചെയ്യാനും നമുക്ക് കഴിയും എങ്കിൽ മാത്രമേ നമ്മളെ പോലെ നമ്മുടെ കുട്ടികൾക്കും നല്ലയൊരു ലോകം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ രാസ കിടനാശിനികൾക്ക് പകരം ജൈവ കീടനാശിനികളും യാന്ത്രിക കീടനിയന്ത്രണവും നാം അവലംബിക്കേണ്ടതുണ്ട് തീർച്ചയായും ഇത്തരം മാർഗ്ഗങ്ങൾ തുടർന്നില്ലെങ്കിൽ വരും തലമുറയ്ക്ക് വെറും തരിശുഭൂമി മാത്രമാണ് കൃഷി ചെയ്യാനായിട്ട് ലഭിക്കുക അത്രയും മണ്ണിൻ്റെ ഗുണമേന്മ നശിച്ചുപോകും